ഇവിടുത്തെ പ്രധാന വന്യജീവി കാട് നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് കാടാണ് വരുന്നത് കാട്ടില് വന്യജീവികള് ആന മയില് കുറുക്കനെല്ലാ കാര്യം കരടി കാട്ട്പോത്ത് കാട്ട് പന്നി എല്ലാം ഉള്ളതാണ് നമ്മൾ എന്താ അത് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു നമ്മുടെ സ്ഥലങ്ങളില് ഇതാക്കുന്നു മൊത്തം കുത്തിപ്പറിച്ച് ഒരു സാധനം നടാൻ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കടുവ ഇറങ്ങിയിട്ടാണെങ്കിൽ പശുക്കളെ പിടിക്കുന്നു ആളുകളെ പിടിക്കുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുങ്ങളെ ഫോറെസ്റ്റ്കാരോട് പറയുന്നു ഫോറെസ്റ്റുകാര് മയക്ക് വെടി വെച്ച് അതുങ്ങളെ സംരക്ഷിക്കാനായി കൊണ്ടുപോകുന്നു അതൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ കഴിയുകയുള്ളു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതുകൂടാണ്ട് തന്നെ മൃഗങ്ങളുടെ ശല്യം മനുഷ്യര് മനുഷ്യരുടെ ജീവനെടുക്കുക മൃഗങ്ങളുടെ ജീവനെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്ന് വരുന്നത് പന്നികളുടേയും കടുവയുടേയും കാര്യത്തിലാണ് ഏറ്റവും കൂടുതല് നമുക്ക് പേടിയുള്ളത് അത് ആണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്